ഇന്ത്യയിൽ മുക്കാൽ ഭാഗം ജനങ്ങളുടെ വീടുകളിലും അടുക്കളകളിലും ഇപ്പോൾ എൽ പി ജി ഗ്യാസ് ആണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബുക്ക് ചെയ്ത് ആദ്യം നമുക്ക് റെസീപ്റ്റ് വ വരുമ്പോഴത്തേക്കും റെസീപ്റ്റ് നമ്പറും ബുക്കിങ്ങ് നമ്പറും ക സെയിം ആണോ എന്ന് നോക്കണം പിന്നെ നമ്മുടെ സിലിണ്ടർ സീൽഡ് ആണോ എന്ന് പരിശോധിക്കണം പിന്നെ നമ്മൾ അതിൽ വെയിറ്റ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പ അവർ പറയുന്നത് പതിനഞ്ച് കിലോ വെയിറ്റ് ആണെങ്കിൽ അത് പതിനഞ്ചൊന്നും ഫില്ലിങ്ങ് ഇല്ല എങ്കിൽ പോലും നമ്മൾ നമ്മുടെ സിലിണ്ടർ ഫി സീൽഡ് ആണോ എന്ന് പ്രത്യേകം നോക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ചെയ്യേ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പൊട്ടിച്ച് നമ്മുടെ ഗ്യാസിൻ്റെ ട്യൂ സിലിണ്ടർ സിലിണ്ടർ നമ്മുടെ ട്യൂബുമായിട്ട് ട്യൂബുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽനിന്നും ലീക്കേജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം മണം വരുന്നുണ്ടോ മണം വരുന്നുണ്ടെങ്കിൽ അത് അപ്പം കത്തിക്കരുത് കത്തിച്ചുകഴിഞ്ഞാൽ തീ പടർന്ന് പിടിക്കും ഇപ്പോഴത്തെ പുതിയ സ് സംവിധാനം അനുസരിച്ച് നമ്മുടെ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ അടിയിൽ വേറെ ഒരു മീറ്റർ മേടിക്കാൻ കിട്ടും ആ മീറ്റർ നമ്മൾ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെ അതിൽ റീഡിങ്ങ് കാണിക്കും റീഡിങ്ങ് കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാതെ അത് മുക്കാൽ ഭാഗത്തോളം ആ റീഡ് അതിൻ്റെ നീഡിൽ വന്ന് നിൽക്കും തീരുന്നതനുസരിച്ച് അത് ബാക്കിലോട്ട് പൊ പോയിക്കോണ്ടിരിക്കും അപ്പോൾ ഒരു ഗ്രീൻ കഴിഞ്ഞ് ഗ്രീൻ സിഗ്നൽ ആണ് കാണിക്കുന്നത് ഗ്രീൻ സിഗ്നൽ ആണെങ്കിൽ നമുക്ക് സിലിണ്ടർ ഓൾറെഡി ഉണ്ട് ഇതിനി എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഓൾറെഡി നമ്മുടെ സിലിണ്ടർ തീരാറായി എന്ന് മനസ്സിലാക്കണം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം സിലി നമ്മൾ സിലിണ്ടർ ഈ മീറ്റർ യൂസ് ചെയ്യുന്ന ഒരു പ്ര പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് അത് കട്ട് ആവും അപ്പം നമ്മുടെ ഗ്യാസിലോട്ട് നമ്മുടെ അടുപ്പിലോട്ട് ഈ ഗ്യ ഗ്യാസ് ഫ്ലോ ചെയ്യില്ല അപ്പോൾ നമ്മൾ അതും അല്ല ഇതിന് പവർ കുറവാണ് അഥവാ ചെറിയ ഫ്ലോ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അതിൻ്റെ പവർ കുറവായതിനാൽ പെട്ടെന്ന് തീപിടുത്തം വരില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അടുക്കളയിൽ തുറന്ന് ജനലെല്ലാം തുറന്നിടണം ഒരു രണ്ട് മൂന്ന് ജനലെങ്കിലും തുറന്നിടണം അത് എയർ കിട്ടണം കിട്ടുന്ന രീതിയിലായിരിക്കണം പിന്നെ നമ്മൾ കുക്കിങ്ങിന് കൂടുതൽ നമ്മൾ കോട്ടൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യാവുള്ളൂ കാരണം ഇത് ചിലപ്പോൾ കാറ്റടിച്ച് ഇങ്ങനെ വരുവാണെങ്കിൽ നൈലോൺ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ എന്തി ഏതെങ്കിലും കാരണവശാൽ നമ്മൾ നമ്മുടെ ഗ്യാസിൽ നിന്നും തീ പിടിക്കുവാണ് തീ സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തോട്ട് സിലിണ്ടർ നീക്കാൻ പറ്റുന്ന രീതീലായിരിക്കണം നമ്മൾ ആ സി സിലിണ്ടറ് നമ്മള് വയ്ക്കേണ്ടത് ഡോറിൻ്റെ അടുത്തോട്ട് ചേർന്ന് വേണം മാക്സിമം ഡോർ തുറന്നാലുടനെ നമുക്ക് എങ്ങനെയെങ്കിലും ആ സിലിണ്ടർ പുറത്തോട്ട് എടുക്കാൻ തരത്തിൽ വേണം വയ്ക്കാൻ എന്തെങ്കിലും വെച്ച് അടയ്ക്കാനോ ഇങ്ങനെ എന്തെങ്കിലും അല്ലാതെ നമ്മൾ സിലിണ്ടർ എന്തെങ്കിലും ആക്സിഡൻറ് പറ്റി കഴിഞ്ഞ് കത്തിപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഓടിച്ചെന്ന് എന്തെ പ്പ പിടിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് നമ്മുടെ വീട് മുഴുവൻ നശിച്ച് നശിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും നമ്മൾ നമ്മൾ പോലും മരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഇപ്പം ഗവണ്മെൻറ് തന്നെ പാവപെട്ട ജനങ്ങൾക്ക് ഉൾ ഉൾ ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിലിണ്ടറുകൾ എല്ലാം ഗ്യാസ് കണക്ഷൻ കൊടുത്തു പക്ഷേ ആ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ബോധവൽകരണം കൊടുക്കണം പക്ഷേ ഇപ്പം നമ്മൾ തിരുവനന്തപുരവും കൊച്ചി അങ്ങനത്തെ മ് മെട്രോ സിറ്റികളിൽ ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകളിൽ അവർ പുറത്താണ് തീപിടുത്തം കുറയ്ക്കാൻ വേണ്ടി പുറത്താണ് അവർ സിലി ദ് ഗ്യാസ് വെച്ചതിന് ശേഷം അതിൻ്റെ ട്യൂബ് മാത്രമേ ട്യൂബിൽ കൂടി മാത്രമേ ഗ്യാസ് ഫ്ലോ ചെയ്ത് അവരുടെ വീട് അവരുടെ കിച്ചണിൽ എത്തുള്ളൂ അത് കാരണം എന്തെങ്കിലും സംഭവിച്ചാലും അവർ പുറത്തായത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് എന്തെയ് അതിന് വേണ്ട നടപടികൾ ചെയ്യാൻ കഴിയും നമ്മൾ സാധാരണ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് പോലെ ഉപയോഗിക്കുന്നത് അനുസരിച്ച് നമ്മൾ പൈസ അടച്ചാൽ മതി ഇതൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ചുമ്മാ അനാവശ്യമായിട്ട് തുറന്ന് ഇട്ടിട്ടല്ല അതിൻ്റെ അതിൻ്റെ നമ്മൾ തീപ്പെട്ടിയോ തീപ്പെട്ടി മാക്സിമം ഉപയോഗിക്കാതെ ഇരിക്കുക്ക തീപ്പെട്ടി നമ്മൾ തുറന്നിട്ട് തീപ്പെട്ടി അന്വേഷിച്ച് പോവുമ്പോഴത്തേക്കും ഗ്യാസ് പുറത്തോട്ട് ലീക്ക് ചെയ്യുവാണ് നമ്മൾ കൊണ്ട് ക തീപ്പെട്ടി ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് കത്തി പടർന്ന് നമ്മുടെ ശരീരത്തിലോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും തീപ്പെട്ടി ഉപയോഗിക്കരുത്